ഹലോ യൂണിയൻ ബാങ്ക് ആ പറഞ്ഞോളൂ താങ്കളെ ഞാൻ എങ്ങനെ ആണ് സഹായിക്കേണ്ടത്

വിഡ്രോ ചെയ്തോ മെസ്സേജ് എന്ത് എന്തെങ്കിലും വന്നായിരുന്നോ വിഡ്രോ ആയി എന്ന് പറഞ്ഞിട്ട് ആ ഓക്കെ ആ മാഡത്തിൻ്റെ അക്കൗണ്ട് നമ്പർ ഒന്ന് പറയാമോ

ഫോർ ആ മാഡം ഏത് എ ടി എമ്മിൽ നിന്നാണ് എടുത്തത് ആ ഒരു മിനിറ്റ് മാഡം ഞാൻ ഒന്ന് നോക്കട്ടെ മാഡത്തിൻ്റെ പേര് ശ്രുതി ബിഎസ് എന്നാണോ ആ നമ്മുടെ റെക്കോർഡിൽ ക്യാഷ് വിഡ്രോ ചെയ്തിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത് ക്യാഷ് വിഡ്രോ ചെയ്തിട്ടില്ല എന്ന് ഉറപ്പാണല്ലോ ഓക്കെ ഞാൻ ഇവിടെ കംപ്ലയിൻ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് മാഡത്തിൻ്റെ അക്കൗണ്ടിൽ ഒരു രണ്ട് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ ക്യാഷ് ക്രെഡിറ്റ് ആവും അഥവാ ക്രെഡിറ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ ബാങ്കിൽ വന്നിട്ട് ഒരു കംപ്ലയിൻ്റ് രജിസ്റ്ററ് ചെയ്താൽ മതി മാഡത്തിൻ്റെ അക്കൗണ്ട് ബാലൻസ് മുപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപ ആണ്

ആ ലിങ്ക് ചെയ്യാൻ പറ്റുന്നില്ല ജിപേ ആയിട്ട് മാഡം ബാങ്കിൽ കൊടുത്തിരിക്കുന്ന നമ്പറും ആയിട്ട് തന്നെ ആണോ ജിപേയിൽ കൊടുത്തത് ആ പറഞ്ഞോളൂ എയ്റ്റ് ഫൈവ് നൈൻ ഫോർ

ത്രീ ടു ആ മാഡം ഈ നമ്പർ അല്ല കൊടുത്തിരിക്കുന്നത് മാഡം കൊടുത്തിരിക്കുന്ന നമ്പറ് നൈൻ സെവൻ ടു സെവൻ സിക്സ് സെവൻ ത്രീ ഫോർ എന്ന നമ്പർ ആണ് മാറ്റാൻ വേണ്ടിയിട്ട് ബാങ്കിൽ വന്നാൽ മതി ബാങ്കിൽ ഒരു ഇത് എഴുതി കൊടുത്താൽ മതി